പാലക്കാട് പ്രാദേശിക വേലയെന്ന് പറയുമ്പോൾ നെന്മാറ വല്ലങ്ങി വേല ഉണ്ട് അത് ശരിക്കും ഓരോ പാലക്കാട് ആളുകളുടേയും വികാരമാണ് ഒരിക്കലും ആ വേല ഒരു ഒരിക്കലെങ്കിലും കാണാത്ത ഒരു പാലക്കാട് ഒരാള് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ നെന്മാറ വേലയെന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് രണ്ട് ദേശക്കാർ തമ്മിലുള്ളൊരു ആഘോഷമാണ് രണ്ട് ദേശക്കാരിൽ അവരുടെ ഏറ്റുമുട്ടുന്ന ഒരു സംഭവം പോലെയാണ് അവരുടെ വെടിക്കെട്ടാണ് അതില് മെയിൻ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ്ഗെസ്റ്റ് ഫയർ വർക്സ് ഉള്ളത് നെന്മാറ വല്ലങ്കി വേലയിലാണ് നടക്കാറ് അത്രയും ഇത് കാണാൻ വേണ്ടി ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി പുലർച്ചെ ആളുകള് ഉറക്കമൊഴിച്ച് തലേ ദിവസം ഉറക്കം കളഞ്ഞ് വന്ന് നിൽക്കുന്ന കാഴ്ച്ച വരെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും തലേ രാത്രി വെടിക്കെട്ടുണ്ടാവും അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ പോകാതെ ഉറക്കമൊഴിച്ച് പുലർച്ച വരെ നിന്ന് പുലർച്ച വെടിക്കെട്ട് കണ്ടിട്ടാണ് തിരിച്ച് പോകാറ് അപ്പോൾ അവിടെ തിരക്കെന്ന് പറയുന്നത് ആ ടൈമിലവിടെ ഒരു നല്ലൊരു തിരക്ക് നമുക്കനുഭവപ്പെടും അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർട്ടിന് വല്ല അസുഖമുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് അത്രയും തിരക്കായിരിക്കും ആതിൻ്റെയുള്ളിൽനിന്ന് ശ്വാസം പോലും നേരെ കിട്ടാത്ത രീതിക്കുള്ളൊരു തിരക്കനുഭവപ്പെടും അവിടെ അത്രയുമൊരു വികാരമാണാളുകളുടെ നെന്മാറ വല്ലങ്കി വേല എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെയുള്ളത് മണപ്പുള്ളിക്കാവ് വേലയാണ് അതെന്ന് പറയുമ്പോൾ അതും പാലക്കാട് സെൻറ്ററിലാണ് ആ ഒരു വേല നടക്കുന്നത് അപ്പോൾ തന്നെ ആ ഒരു നാഷണൽ ഹൈവേ ആ ഒരു എൻ എച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് ആ ഒരു വേല നടക്കാറ് കുറേ ആനകളുണ്ടാകും അപ്പോൾ ആനകളുടെ ഒരു കുട മാറ്റമൊക്കെ അതൊക്കെ കാണാൻ തന്നെ ഒരു കളറായിട്ടുള്ളൊരു പരിപാടിയാണ് പിന്നെ വന്നിട്ടുള്ളതൊരു പുതുശ്ശേരി വെടിയെന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് പാലക്കാട് തന്നെ അതും ഈ നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ ഈ വേല നടത്തുന്നത് അപ്പോൾ അത്രയും ഒരു ആളുകളുടെ ഒരു വികാരം നമുക്ക് അതിന്ന് മനസിലാക്കാം ആ ഒരു ഏഴു മണിയൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു നാഷണൽ ഹൈവേയിൽ കൂടെ ബ്ലോക്ക് ചെയ്യും വണ്ടി പോലീസ്കാർ നാഷണൽ ഹൈവേ അടക്കം ബ്ലോക്ക് ചെയ്തിട്ടാണ് അവര് പരിപാടിക്ക് വേണ്ടി സഹകരിക്കുക അപ്പോൾ അത്രയും ഒരു അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയാണ് പക്ഷെ അതെനിക്ക് തോന്നുന്നത് പാലക്കാടിന് മാത്രം സ്വന്തം എന്ന് പറയാനൊരു ആഘോഷങ്ങളൊക്കെയാണത് വേറെ എവിടെയും ഇത്രത്തോളം ആഘോഷമുള്ളൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പാലക്കാട്ടിലെ ആളുകളായാലും എല്ലാം ഭയങ്കര സപ്പോർട്ടീവുള്ള ആളുകളാണ് എല്ലാ വേലയാണെങ്കിലും പൂരങ്ങളൊക്കെ പിന്നെ കാവശ്ശേരി പൂരമുണ്ട് അതും അതിൻ്റെ വെടിക്കെട്ടും ഈ പന്തലൊക്കെയുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി ആളുകള് കുറേ സ്ഥലങ്ങളിൽനിന്നൊക്കെ വന്നിട്ട് കാണാ കണ്ടിട്ട് പോകാറുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങള് കാവശ്ശേരി പൂരത്തിന് പോയിരുന്നു അപ്പോൾ ഞങ്ങളുടെയടുത്ത് ഒരു കുറച്ച് ആളുകൾ വഴി ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് വരുന്നത് കൊല്ലത്തുനിന്നാണെന്നാ പറഞ്ഞത് കൊല്ലത്ത് നിന്ന് ഇത് കാണാൻ വേണ്ടി വന്ന ആളുകളടക്കം ഉണ്ട് അപ്പോൾ അത്രയും കുറേ ഫേമസായിട്ട് കുറേ ഉള്ള വേലകളാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്